നമ്മുടെ പ്രദേശത്ത് സാധാരണയായി കാണപ്പെട്ടു വരുന്ന അന്ധവിശ്വാസങ്ങളിൽ ഒന്നാണ് സന്ധ്യ സമയം കഴിഞ്ഞാൽ പിന്നെ മുറ്റം അടിക്കരുത് എന്നുള്ളത് മുറ്റം അടിച്ച് കഴിഞ്ഞാൽ മറ്റു വീട്ടുകാർക്ക് അതായത് അയൽവക്കത്തുള്ള വീട്ടുകാർക്ക് അത് ദോഷമായി ബാധിക്കും എന്നും അവിടെ കടം കയറും എന്നും ആൾക്കാർ ഇപ്പോഴും വിശ്വസിക്കുന്നുണ്ട് പിന്നെ മറ്റൊരു വിശ്വാസമാണ് പല്ലി പല്ലി നമ്മുടെ ദേഹത്ത് വീഴുവാണെങ്കിൽ നമുക്കത് വലിയ ആപത്തും രോഗങ്ങളും ഉണ്ടാവാൻ കാരണം ആകുമെന്നും എല്ലാവരും വിശ്വസിക്കുന്നുണ്ട് പിന്നെ മറ്റൊരു അന്ധവിശ്വാസമാണ് മുറ്റത്ത് വിറക് കൂട്ടി ഇടരുത് എന്നുള്ളത് വിറക് കൂട്ടി ഇട്ടാൽ നമുക്ക് ധനനഷ്ടം ഉണ്ടാകുമെന്ന് ചുറ്റുമുള്ള ആൾക്കാർ വിശ്വസിക്കുന്നുണ്ട് പിന്നെ മറ്റൊരു കാര്യമാണ് മരണ വീട്ടിൽ പോയിട്ട് വന്നാൽ കുളിക്കുക എന്നുള്ളത് മരണ വീട്ടിൽ പോയിട്ട് വന്ന് കുളിച്ച് ആ വസ്ത്രങ്ങളെല്ലാം കഴുകിയിട്ടതിനു ശേഷം മാത്രമേ സ്വന്തം വീട്ടിൽ കയറാൻ പാടുള്ളൂ ഇല്ലെങ്കിൽ നമ്മളുടെ വീട്ടിലും മരണം സംഭവിക്കുന്നു എന്ന് ആൾക്കാർ വിശ്വസിക്കുന്നുണ്ട് പിന്നെ മറ്റൊരു കാരണമാണ് അസുഖമായി കിടക്കുന്ന രോഗിയെ കാണാൻ ശനിയാഴ്ച ദിവസങ്ങളിൽ പോയില്ല എന്നുള്ളത് ശനി ബുധൻ ദിവസങ്ങളിൽ അസുഖക്കാരെ കാണാൻ പോവില്ല പോയാൽ അവർക്ക് അതിൽ കൂടുതൽ ആപത്ത് സംഭവിക്കും എന്ന് വിശ്വസിക്കുന്നു അതുപോലെ ചൊവ്വാഴ്ച ദിവസങ്ങളിൽ ഈ ഒരു വീട്ടിൽ നിന്നും മറ്റൊരു വീട്ടിലേക്ക് യാത്ര ചെയ്യത്തില്ല ചെയ്താൽ ആ വീട്ടിൽ നാശം സംഭവിക്കും എന്നും വിശ്വസിക്കുന്നു ഇതൊക്കെയാണ് പൊതുവായി കണ്ടുവരുന്ന അന്ധവിശ്വാസങ്ങൾ